സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ് നമുക്ക് കാണുവാനും കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായ കാര്യം മുൻ മുൻപ് പത്ര മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലൂടെയാണ് കാരണം അപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു മാധ്യമം ഒരു രീതിയിൽ ഒരു വാർത്തയായി വ്യാഖ്യാനിച്ചാലും മറ്റൊരു മാധ്യമത്തിലൂടെ നമുക്ക് അതിൻ്റെ യദാത യഥാർത്ഥ പ്രത്യേകത മനസ്സിലാക്കുവാൻ സാധിക്കും അത് കൂടുതൽ പ്രയോജനകരമായിട്ട് നമുക്ക് ഒരു വാർത്തയെ തന്നെ പല മേഖലയിലൂടെ പല കോണുകളിലൂടെ വീക്ഷിക്കുവാനും നമുക്ക് സാധിക്കും കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുവാനും വാർത്തകളെ കൂടുതൽ രീതിയിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നു പല മാധ്യമത്തിലൂടെ ഒരു വാർത്തയെ മനസ്സിലാക്കുന്നത് പോലെയല്ല ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ വാർത്തയെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടവ് കടന്നുവരവ് വാർത്തകളെ കൂടുതലായിട്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനും അതിനെ ഏതെല്ലാം തലത്തിലൂടെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന് പഠിക്കുവാനും സാധിക്കുന്നു